എന്റെ നാട് വയനാട് ആയതുകൊണ്ട് നമുക്ക് റെയില്വേ ഇല്ല വിമാനത്തിന്റെ വിമാനവും ഇല്ല അപ്പം ഇതുരണ്ടും ഇല്ല അതൊക്കെ നമ്മള് മറ്റുള്ള ജില്ലകളില് പോയിട്ടാണ് ആശ്രയിക്കുന്നത് പിന്നെ നമ്മള് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും ജില്ലകളിലേക്കും പോവാന് കൂടുതലും ടാക്സി വാഹനങ്ങളും പ്രൈവറ്റ് വാഹനങ്ങളും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു അപ്പം നമുക്ക് അതാണ് നമ്മള് മറ്റുള്ള സംസ്ഥാനവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന ആകെയുള്ള ആശ്രയം പിന്നെ ബസ്സുകള് റെയില്വേ വിമാനങ്ങള് എന്നിവ ഗതാഗത മാര്ഗങ്ങള് ഒരുപാട് ഗുണനിലവാരം ഉണ്ട് ബസ്സുകള് എന്ന് വെച്ചാല് ലോങ്ങ് ബസ്സുകള് ഒക്കെ നമുക്ക് ഇപ്പം പിന്നെ പെട്ടെന്ന് പോയി എത്താന് സാധിക്കുന്നു ലോങ്ങ് ട്രിപ്പ് ഒക്കെ പെട്ടെന്ന് പിന്നെ റെയില്വേ ആണെങ്കില് അതിലും വേഗം എത്താന് പറ്റുന്നു വിമാനമാണെങ്കില് അതിനെക്കാളും വേഗം എത്താന് ഗുണനിലവാരം ഉള്ളതാണ് അപ്പം ഇതൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഗതാഗത മാര്ഗങ്ങളാണ്